ഞങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള ഒരു രണ്ട് മൂന്ന് വീടുകളിൽ മൂന്ന് വീടുകളിൽ ഹോം സ്റ്റേ നടത്തുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഹോം സ്റ്റേ ഹോം സ്റ്റേ മുൻപോട്ട് പോവുന്നത് അത് ഒരുപാട് വലിയ റിച്ച് ആയിട്ടുള്ള ഹോം സ്റ്റേ ഒന്നുമല്ല സാധാറണക്കാർ സാധാരണ രീതിയിൽ നടത്തുന്നത് ഒരു സ്ഥാപനമാണ് അത് ഹോം സ്റ്റേയാണ് വിനോദസഞ്ചാരികളെ താമസി വിനോദ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിൽ വെല്ലുവിളി എന്ന് പറയുന്ന ഫുഡ് ഒരു വെല്ലുവിളിയാണ് കാരണം നമ്മളെ ഈ നാടൻ രീതിയിലുള്ള ഈ ഫുഡ് ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒന്നും അത് സായിപ്പന്മാരും മദാമ്മമാരും അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ച് അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചില ഫുഡ് ഒക്കെ അവർക്ക് ഇഷ്ടമാവും ബാക്കി സൗകര്യങ്ങൾക്കൊക്കെ ഓക്കെ ആണ് അല്ലാതെ പ്രത്യേകിച്ച് വെല്ലുവിളികൾ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുന്നു അത്യാവശ്യം തരക്കേടില്ല അധികം റേറ്റുമില്ല സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന അത്ര റേറ്റേ ഉള്ളു